സമീപ വർഷങ്ങളിലായി ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മിക്കവാറും എല്ലാ ആളുകളും മാംസാഹാരത്തിലാണ് അവരുടെ അവരെ ആകർഷിക്കുന്നത് മാംസാഹാരത്തിലേക്കാണ് സസ്യാഹാരത്തിനോടുള്ള അവരുടെ ആ കഴിക്കാനുള്ള സസ്യാഹാരത്തിനോട് അവരുടെ താല്പര്യം തന്നെ നന്നായി കുറഞ്ഞിരിക്കുകയാണ് ആർക്കും സസ്യാഹാരം ഇഷ്ടമല്ലാതായി മിക്കവാറും എല്ലാ വീടുകളിലും എല്ലാ ദിവസങ്ങളിലും മാംസാഹാരമായിരിക്കും കൂടുതൽ രുചികരമായിട്ടുള്ളതും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അതാണ് എന്നാൽ സസ്യാഹാരമായിക്കോട്ടെ അധികം വീടുകളിലും വയ്ക്കാറില്ല ഓണത്തിനായിക്കോട്ടെ ആ ദിവസങ്ങളിൽ മാത്രമാണ് സസ്യാഹാരം നമുക്ക് മിക്ക വീടുകളിലും കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് പിന്നീട് കുറച്ച് കാലത്തേക്ക് സസ്യഹാരം കഴിക്കുന്നത് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഭക്ഷണ ക്രമത്തിലുള്ള മാറ്റങ്ങൾ അത് ജീവിതത്തെ തന്നെ അല്ലെങ്കിൽ ശരീരത്തിനെ തന്നെ ഒരുപാട് ബാധിച്ചിരിക്കുന്നു മാംസാഹാരം കഴിച്ചുകൊണ്ട് ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പ് അടിഞ്ഞു കൂടി പല ആരോഗ്യ കാരണങ്ങൾക്കും ഉണ്ടാകുന്നു അങ്ങനെ ജീവിതത്തിൻറെ താളക്രമം തന്നെ ഒരുപാട് മാറിയിരിക്കുന്നു അതുപോലെത്തന്നെ ഇന്നത്തെ കാലത്ത് വിഷമടിക്കാത്ത അല്ലെങ്കിൽ നല്ല നല്ല പച്ചക്കറികൾ കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ് ഒരുവിധം എല്ലാവരും മരുന്നടിച്ചിട്ടാണ് പച്ചക്കറികൾ വിളയിക്കുന്നത് അങ്ങനെ സസ്യാഹാരത്തിൻ്റെ ലഭ്യത തന്നെ ഒരുപാട് കുറഞ്ഞിരിക്കുന്നു മിക്കവാറും എല്ലാ ആഘോഷ പരിപാടികൾക്കും മിക്കവാറും എല്ലാം മലയാളികളുടെ വീട്ടിലും മാംസാഹാരമായിരിക്കും ആ ഒരു അതിഥി വീട്ടിലോട്ട് വന്നാൽ പോലും അവിടെ മാംസഹാരമായിരിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു കാലക്രമേണ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈയൊരു മാംസഹാരത്തിൽ വരാനുണ്ട് കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ സസ്യാഹാരം എന്ന ഒരു ഭക്ഷണ മേഖല തന്നെ ഇല്ലാണ്ടാവും എന്നാണ് തോന്നുന്നത്